ഹലോ ആ ഉഷ ടീച്ചർ അല്ലേ ആ സോറി കേട്ടോ ഞാൻ നമ്പറ് മാറി പോയതായിരുന്നു അതേ ഇന്ന് ആ തിരക്കായിരുന്നു ഞാൻ ടീച്ചറിനെ ഒന്ന് വിളിക്കണമാരുന്നു അതുകൊണ്ട് നമ്പറ് മാറി പോയതായിരുന്നു അല്ല മാറിപോയത് അല്ല ഞാൻ ആ ഒരു ടെൻഷനിൽ ഇരുന്നു കൊണ്ട് കോള് വിട്ടത് വീട്ടിലേക്ക് ആണെങ്കിലും മാറിപ്പോയതാണ് ശരി കേട്ടോ ഞാൻ ഞാൻ വിളിച്ചത് ഇന്ന് ഭയങ്കര ജോലിയിൽ ജോലി ഈല് ഭയങ്കര ഭയങ്കരായിട്ട് ജോലിയായിരുന്നു അപ്പടി റ്റയേർഡ് ആയി ഇന്ന് നമ്മൾക്ക് ഒന്നു പുറത്തു പോയാലോ വൈകുന്നേരം ഞാൻ വന്നതിനു ശേഷം ആ ഈ എല്ലാ ദിവസവും ങാ ആ ആ അപ്പോൾ നമ്മൾക്ക് ഇന്ന് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമ്മൾക്ക് പിള്ളേരെയും കൂട്ടികൊണ്ട് നമുക്ക് ഇന്ന് പുറത്ത് പോകാം അപ്പം ഇന്ന് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ നമുക്ക് പുറത്തുപോയി സിനിമാ കണ്ടിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിച്ചു വരാം അത്താഴത്തിനൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ ആ ആ ആ ഇപ്പം ആ ഞാനും അത് ഓർത്തു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഒരു വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കൊണ്ടാണ് ഞാൻ ടീച്ചറാണോ എന്ന് ചോദിച്ചത് അപ്പം നമ്മൾക്ക് കുട്ടികൾ എന്നാ എടുക്കുന്നു ആ നേരത്തെ വരാം നേരത്തെ വന്നിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ സിനിമാ ടിക്കെറ്റ് നമ്മൾക്ക് കിട്ടത്തില്ലല്ലോ നേരത്തെ പോയി ടിക്കെറ്റ് ബുക്ക് ചെയ്താൽ നമ്മൾക്ക് മോഹൻലാലിൻ്റെ നല്ല മീയയുടെ നല്ല സിനിമാ ഇറങ്ങിയിട്ടുണ്ടല്ലോ തുടരും എന്നുള്ളത് നമ്മൾക്ക് ആ സിനിമാ ആ ആ ആ ആ അപ്പം നമ്മൾ രണ്ട് അതേ അതേ അതാണ് മനസ് ആ അപ്പം ആ അപ്പം കുട്ടികൾ വരും അതേ അതേ നമ്മള് ഒരേപോലെ ചിന്തിച്ചല്ലോ അതാണ് ഏക മനസെന്ന് പറയുന്നത്

ആ ഓഫീസിലേ ജോലികളൊക്കെ പെട്ടെന്ന് നിർത്തി തീർത്തു ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഞാൻ വരുമ്പോൾ അതികം താമസിക്കാതെ കുട്ടികളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുക ആ അതെ അതെ ആ അതെ അതെ മ് ഓക്കേ അതെ അതേ ഒന്ന് കുളിച്ചു ഫ്രെഷായാൽ മാത്രം മതി അതെന്നാ ആ ആ ആ ഓക്കേ ആ ശരി എന്നാൽ ഏ ഇല്ല ഇല്ല ഒന്ന്